ഹലോ എന്തോ അതെല്ലോ പിന്നെ ഓഫറെന് ഉണ്ടോന്ന് ചോദിച്ചാൽ കുറെ സാധനങ്ങള്ക്ക് ഒക്കെ ഡിസ്ക്കൗണ്ടൊണ്ടായിരുന്നു ഉം

ആ പറഞ്ഞോളൂ എന്തൊക്കെ സാധനമാണ് സാറിന് വേണ്ടത്

ഉം ഹും ഉം ആ പറഞ്ഞോളൂ സാറ് പിന്നെ വേറെ എന്തെക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞോളൂ ക്ലീനിങ്ങിന് ആ ക്ലീനിങ്ങിനേത് ലോഷനാണ് വേണ്ടത് ലോഷന് എല്ലാ രീതിയിലും ഉള്ള ലോഷനൊണ്ടായിരുന്നു സാധാരണ സാറ് സാറെക്കെ ഏത് ലോഷനാണ് യൂസ് ചെയ്യുന്നത് ഉണ്ടല്ലേ അപ്പം നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ലോഷന് ഏതാന്ന് സാറ് ലിസ്റ്റ് തന്നിരുന്നെങ്കിൽ ഞാന് എടുത്ത് വെയ്ക്കാമായിരുന്നു ആം ലിസ്റ്റ് ഇപ്പം നിസാ ഇപ്പം ലോഷനെക്കെ ആന്ന് പറഞ്ഞാലും നൂറ് രൂപയുടെ ലോഷനാണെങ്കിൽ ഇരുപത് രൂപ ഡിസ്ക്കൗണ്ടിട്ട് എൺപത് രൂപയ്ക്ക് തരും ഉം പയറ് വര്ഗങ്ങള്ക്ക് ഒക്കെയെന്ന് പറഞ്ഞാൽ വന്പയറിനാന്ന് പറഞ്ഞാലും വന്പയറിനും അഞ്ച് രൂപ ഡിസ്ക്കൗണ്ടെക്കെ ഇട്ട് തരും എഴുപത് രൂപയൊക്കെ ആണെങ്കിൽ അറുപത്തഞ്ച് രൂപയുടെ ഡിസ്ക്കൗണ്ടിൽ തരും പയറ് വര്ഗങ്ങളിൽ എല്ലാ ഇനത്തിനും ഉണ്ട് ആം അപ്പം സാറിന് സാറാണോ വരുന്നത് അതോ വേറാരേലും പറഞ്ഞ് വിടുവാണോ ആയിരിക്കും അല്ലേ എപ്പോഴത്തേനെത്തും സാര് എപ്പോഴത്തേനെത്തും ആ വേറെ എന്തെങ്കിലും വേറെ ഒരുപാട് സാധനങ്ങൾ ഓഫറിലെ സാധനങ്ങളെക്കെ ഉണ്ടായിരുന്നു സാറിന് വേറെ പച്ചക്കറികളെല്ലാം ഐറ്റത്തിനും ഉണ്ട് വെണ്ടയ്ക്ക പാവയ്ക്ക അങ്ങനെ ഉള്ള സര്വ്വ സാധനങ്ങള്ക്കും ഉണ്ട് ഡിസ്ക്കൗണ്ടൊണ്ട് അപ്പം ഇന്ന് രണ്ട് മണി വരെയാണ് അതിനുള്ള ഓഫറൊള്ളൂ അപ്പം റേഷന് കാര്ഡെക്കെ കൊണ്ട് വരുവാണെങ്കിൽ അതിലും കുറച്ചൊക്കെ എല്ലായിടത്തു നിന്നും എല്ലാ ഇടത്തെ കഴിഞ്ഞും കൂടുതൽ സബ്സിഡി നമുക്ക് തരും സാധനങ്ങളൊക്കെ തന്നെ എടുക്കുകയും ചെയ്യാം ആ പിന്നെ കുട്ടികള്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഞങ്ങളുടെ മുകളിൽ തന്നെയാണ് ജുമാഞ്ചീന്ന് പറയുന്ന സംഭവം പിന്നെ സാധനങ്ങളും സാധനങ്ങള്ക്ക് ഓര്ഡറ് തന്നിട്ട് കുട്ടികളേം കൊണ്ട് മുകളില് കയറി അവരുടെ ഇതിനും പോകാം പിന്നെ സാധനങ്ങളൊക്കെ അല്ല സാറ് തന്നെ വരുമായിരുന്നെങ്കില് സാധനങ്ങളൊക്കെ നോക്കി നല്ല നല്ല സാധനങ്ങൾ ക്വാളിറ്റി അനുസരിച്ച് എടുക്കാമായിരുന്നു വരുമല്ലേ അപ്പം നമ്മുടെ പാര്ക്കിംഗ് ഏരിയയൊക്കെ നമ്മുടെ ഫ്രണ്ട് വശത്ത് തന്നെ ഉണ്ട് പാര്ക്കിംഗ് ഏരിയ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഫ്രണ്ട് വശത്ത് തന്നെ ഉണ്ട് അതൊന്നും ഓര്ത്ത് ടെന്ഷനടിക്കണ്ട ഉം എല്ലാ ബുധാനാഴ്ചകളിലും തന്നെ ഡിസ്ക്കൗണ്ട്കളെക്കെ ഉണ്ട് അതുപോലെ അടുത്ത് നൈബേസെക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടെല്ല ബുധനാഴ്ചകളിലൊക്കെ പറഞ്ഞ് വിടുക ആണെങ്കിൽ ഞങ്ങൾക്കും വലിയ ഉപകാരമായിരുന്നു നിങ്ങൾക്കും ലാഭത്തിനും സാധനങ്ങളൊക്കെ കൊണ്ടു പോവേം ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് നല്ല നല്ല സാധനങ്ങളൊണ്ട് നല്ല ഫസ്റ്റ് ക്വാളിറ്റീലൊള്ള പ്രോഡക്റ്റ്കളാണ് ഇവിടുള്ളത് അപ്പം സാധനങ്ങൾ ബുധനാഴ്ച ദിവസങ്ങളിൽ ഒക്കെത്തന്നെ വന്ന് മേടിക്കുന്നതായിരിക്കും സാറിന് സാറ് പൈസ മുടക്കുമ്പം സാറിനും ലാഭം ബുധനാഴ്ച ദിവസങ്ങളിൽ തന്നെ വന്ന് മേടിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഹൈ റേഞ്ച് ഹൈപ്പര് മാര്ക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത് ആ ആ എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് ഉം ശരി ഓക്കെ